ഈ വൻകിട കർഷക സംരംഭങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ ഗ്രാമീണ മേഖലകളിൽ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ കച്ചവടക്കാരും അവരൊരു അവരുടെ കയ്യിലുള്ള പൈസ എത്രയാണോ അത് വച്ചായിരിക്കും അവർ വണ്ടുന്നത് അവർ സാധാരണക്കാർക്കും വളരെ അധികം കുറച്ചായിരിക്കും കൊടുക്കുന്നത് പക്ഷേ ഈ വൻകിട കർഷകർ എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഒരു ഇന്നത് അത് പൈസ കൊടുത്ത് വാങ്ങും അതിൽ കൂടുതൽ അവർ മറ്റ് ജനങ്ങൾക്കും കൊടുക്കുന്നു അപ്പോൾ കൊടുക്കുമ്പോൾ അവർ ഈ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് അത് നല്ല രീതിയിൽ ബാധിക്കുന്നും ഉണ്ട് അവരിപ്പം കൊടുക്കുന്ന ഇപ്പം മത്സ്യങ്ങൾ കൊടുക്കുന്ന കടകളിൽ ഭയങ്കരമായിട്ട് അലങ്കാരം അല്ലെങ്കിൽ എന്താണ് അവർ ഒരു ഒരു ഒരിക്കലും മീൻ വാങ്ങുമ്പം അത് ഒരു കിലോ മത്സ്യങ്ങൾ വാങ്ങുമ്പോൾ നമുക്കൊരു സാധനം ഫ്രീ ഓഫറുകൾ കൊടുക്കുന്നു പക്ഷേ അത് ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് അത് അവർക്ക് അത് സാധിക്കാതെ വരുമ്പോൾ പാവപ്പെട്ടവരായിരിക്കും ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് അത് സാധിക്കുകയില്ല അപ്പം ഈ ജനങ്ങൾ ഈ ഓഫറുകൾ അല്ലെങ്കിൽ ഈ ഒന്നിന് പകരം വേറെയൊന്ന് കൊടുക്കുമ്പോൾ കേൾക്കുമ്പോൾ ജനങ്ങൾ അത് അവിടെയാണ് സാധാരണ പോകുക ചെറിയ ചെറിയ കച്ചവടക്കാരുടെ അടുത്ത് പോവാൻ സാധ്യത വളരെ കുറവാണ് അപ്പം അത് ചെറിയ ചെറിയ കച്ചവടക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കും എന്ന് വച്ചാൽ വലിയ വലിയ അവർ ചെറിയ വിലക്ക് വാങ്ങുകയും ജനങ്ങൾക്ക് അത് വലിയ വിലക്ക് മറ്റുള്ളവർക്ക് അത് വലിയ വിലക്ക് വിലക്ക് കൊടുക്കുകയും ചെയ്യുന്നു ചെറിയ ചെറിയ കച്ചവടം എന്ന് വച്ചാൽ അത് ന്യായമായിട്ട് ഒരു മിനിമം പൈസയാണ് അവർ ഈടാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്കത് അവർക്ക് അവരുടെ ഒരു ജീവിതം മുന്നോട്ട് പോവാനുള്ള പൈസയും അതിൽനിന്ന് കിട്ടുന്നുള്ളൂ അവർക്ക് എന്താ വേണം മീൻ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മത്സ്യങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ ഒന്ന് എടുത്താൽ ഒന്ന് അതൊന്നും അവർക്ക് സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനെ ചീയുമ്പോൾ ചെറിയ ചെറിയ കച്ചവടക്കാർ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് പിന്നെ ചെറിയ കർഷകരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പം മത്സ്യങ്ങൾ എന്നല്ല വേറെ എന്തുമായിക്കോട്ടെ അങ്ങനെയാണ് ചെയ്യുന്നത് അവർ എന്താ അവർ ഭയങ്കരമായിട്ട് ഇപ്പം മത്സ്യങ്ങൾ വിൽക്കുന്ന കട ആയാലും അല്ലെങ്കിൽ അത് അത് അത് ഇരിക്കുന്ന കടയിൽ ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ജനങ്ങൾ ആഘോഷിക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കും ഇരിക്കുന്നത് പക്ഷേ അത് ചെറിയ ചെറിയ കച്ചവടക്കാരെ ബാധിക്കുകയും ഒട്ടും നല്ല രീതിയിൽ ബാധിക്കുകയില്ല അവരുടെ ജീവിതവും വരുമാനത്തെ ബാധിക്കുന്നു എല്ലാതെയും ബാധിക്കുന്നുണ്ട് ഇവിടെ ഇത്ര ഭയങ്കര ബുദ്ധിമുട്ടിലായി വരുന്നു പിന്നെ അതുകൊണ്ടൊക്കെ ആണ് വൻകിട കാർഷിക സംരംഭങ്ങളിൽനിന്നും മത്സ്യങ്ങൾ ഗ്രാമീണ മേഖലയിൽ ചെറുകിട കർഷകരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതൊക്കെയാണ്